തീർച്ചയായും മെയ്ൻ കമൻസിനോട് ഞാൻ യോജിക്കുന്നു ദാരിദ്ര്യം ഒരു തടസ്സമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പൈസയില്ലാത്ത ഒരാൾക്കും തന്നെ ഈ നാട്ടിൽ നല്ലൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല പൈസക്ക് മോൾ പരുന്തും പറക്കില്ലാന്ന് പറഞ്ഞ ആ കമൻട്സിനോട് ഞാൻ യോജിക്കുന്നു കാരണം പൈസയുണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്ത് ഒരു ക്യാൻസർ അങ്ങനെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യാനും അങ്ങനെയൊക്കെ പൈസയില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാനേ പറ്റില്ല എന്നൊരവസ്ഥയിലോക്ക് മാറീട്ടുണ്ട് പട്ടിണി കിടക്കാമ്പോലും ഇപ്പോൾ പൈസയുടെ ആവശ്യം വന്ന് തുടങ്ങീട്ടുണ്ട് ഒരു വെള്ളം കുടിക്കാനാണെങ്കിൽ തന്നെ മിനിമം ഒരു പതിനഞ്ച് രൂപയെങ്കിലും വേണം അപ്പം ഭക്ഷണം കഴിക്കും മിനിമമൊരു നൂറ് രൂപയെങ്കിലും ഉണ്ടങ്കിലേ ഒരാൾക്ക് ഒരു നേരെത്താഹാരമ്പോലും കഴിയ്ക്കാൻ പറ്റുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്ക്യാണ് നമ്മുടെ ലോകം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കേസായാലും കൂടുതൽ കൂടുതൽ ക്യാഷിന് വേണ്ടി ഡോക്ടർമാർ പല കൃത്യങ്ങളും ചെയ്യുന്നതായിട്ട് എനിക്ക് ഈയൊരു ഈ ഇന്നിവിടെ ഈ ഈയൊരു സിറ്റുവേഷനിലെനിക്ക് പറയാൻ തോന്നുന്നത് കാരണം ജെനറൽ ഹോസ്പിറ്റൽ ആയാലും പ്രൈവറ്റോസ്പ്പിറ്റലായാലും ജെനറൽ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽനേക്കാൾ പൈസമേ പൈസ വാ മേടിക്കുന്നൂ എന്നതിലാണ് എൻറ്റൊരു നിഗമനം കാരണം പ്രൈ ജെനറൽ ഹോസ്പിറ്റൽ മാത്രം പേര് മാത്രമേ ഉള്ളു കാരണം ഒരു ഓപ്പ്റേഷൻ ചെയ്യാൻ തിയേറ്ററിൽ കൊണ്ട്പോകുന്നതിന് മ തൊട്ട് മുൻപ് തന്നെ അനസ്തേഷ്യാ ഡോക്ട്രെ അവരുടെ ക്ലിനിക്കിൽ പോയി കാണുകയും അവിടെ പോയി പൈസ കൊടുക്കുകയും അത് അതുമൂലമാണ് അനസ്തേഷ്യ കൊടുക്ക്ന്നതും അന്നക്കെ എനിക്ക് തോന്നീട്ടുണ്ട് പലപ്പോഴായിട്ടും ഒരു പ്രസവ റൂമിലേക്ക് സിസേറിയന് ആയിട്ട് പേഷ്യൻസിനെ കൊണ്ട് പോകുമ്പോഴ്ത്തേക്കും അനസ്ത്യേഷ്യ ഡോക്ട്ര് ഇപ്പം സെപ്പ്റേറ്റ് കാണുകയും ഒരു കൈക്കൂലീ എന്ന വണ്ണം അവർക്ക് പൈസ കൊടുക്കുകയും അത് മൂലമാണ് ഇവർ വന്ന് ഇവർക്ക് അനസ്തേഷ്യ കൊടുത്ത് പോകുന്നതാന്ന് പതിവായി കാണുന്ന കാഴ്ചകളാണ് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അവർ ഭീമമായ തുക പ്രസവത്തിനായി നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നത് കൊണ്ട് സാധാരണക്കാരെല്ലാരും ആശ്രയിക്കുന്നത് ജനറൽ ഹോസ്പിറ്റൽ തന്നെയാണ് ജനറൽ ഹോസ്പിറ്റലിൽ കൂടുതൽ സൗകര്യങ്ങൾ ഇല്ലാത്തത് കാരണം നമുക്ക് കാസർഗോഡ് ജില്ലേന്ന് നമുക്ക് മാങ്ക്ളൂരേക്ക് പോവെണ്ടി വരുന്നൊരു അവസ്ഥ പലപ്പൊഴായിട്ടും ഉണ്ടായിട്ടുണ്ട് അത് ഏത് പേഷ്യൻസിനായാലും ഈ ക്യാൻസർ പേഷ്യൻടീസ് പേഷ്യൻസിനായാലും അതുപോലെ തന്നെ കിഡ്നി സമ്പന്ധമായിട്ടുള്ള എല്ലാ പേഷ്യൻസ് എല്ലാ പേഷ്യൻസ്സും നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ ഒരു ഫെസിലിറ്റീസും അതോ അത് അതുകൂടാതെ ഒരു മെഷ്യൻസ്സും അതൊക്കെ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കാണാമ്പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം മങ്ക് മാങ്ക്ളൂർ പോയിട്ട് ചികിത്സിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് നിലവിൽ നടന്നോണ്ടിരിക്കുന്നത് ഇവിടുന്നു ക പറ്റൂല്ലാന്ന് പറഞ്ഞ കേയ്സസൊക്കെ മങ്കലാരത്ത് കൊണ്ട് പോവുകേം പോവുന്ന വഴി ട്രാൻസ്പോട്ട് പോവുന്ന വഴി പലരും മരിക്കുകയായി പല തവണ മരിക്കുന്നതായി ഈ ഈ ഒരു തിൽ കാണാമ്പറ്റുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ദാരിദ്രം വളരെ ദാരിദ്രം പൈസക്കാരന് വളരെ വളരെ വളരെ പൈസയില്ലാണ്ട് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറീട്ടുണ്ട് ഇന്നിവിടെ ഈ കേരളത്തിൽ കേരളത്തിൽത്തന്നെ മൾട്ടീ ഹോസ്പിറ്റൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേറെ പുറം പുറം രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കണ്ട അവസ്ഥയിൽ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൈസയുള്ളവൻ പോയി ചികിത്സിക്കും പൈസയില്ലാത്തവൻ ചികിത്സിക്കില്ല മരണപ്പെട്ട് പോവുകയാണ് പലപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ജെനറൽ ഹോസ്പിറ്റൽ തന്നെ മൾട്ടീ ഹോസ്പിറ്റലാക്കി മാറ്റ്ന്നതിന് മാറ്റുക എന്നത് എൻറ്റൊരു നിർദ്ദേശത്തിൽ ഒന്നാണ് കൂടാതെ തന്നെ അവിടെ മെഷീൻസ്സും കാര്യങ്ങളും എന്ത് ഏ ഏതൊക്കെ മെഷീൻസ്സ് വേണംന്ന് വെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇമ്പോട്ട് ചെയ്യാനും അതിൽക്കൂടി സാധാരണക്കാരായ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് അത് നന്നായി ഉപകരിക്കുമെന്നും എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് പക്ഷേ പ്രൈവറ്റോസ്പിറ്റൽ പൈസയുള്ളവർ പൈവ് പ്രൈവറ്റോസ്പിറ്റൽ പോകയും കൂ കൂടാതെ നല്ല ട്രീറ്റ്മെൻറ്റെടുത്ത് അവർ രക്ഷപ്പെടും എന്ന സാഹചര്യമാണ് ഇപ്പോളുള്ളത് പൈസയില്ലാത്തവൻ മരിക്കുകയും അത് മൂലം ഇവർക്ക് ഒരു ഒരു ആൾക്കാരെ നഷ്ടപ്പെട്ടു തുടങ്ങീരിക്കുന്നു എന്നുമാണ് ഈ അവസരത്തിലെനിക്ക് പറയാനുള്ളത് കൂടാതെ തന്നെ എൻറ്റൊരനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഗവണ്മെൻറ്റ് ഹോസ്പ്പിറ്റലിൽ ഒരനുഭവത്തെ ഞാൻ വിവരിക്കാം കാരണം ഒരു ഒരു പക്ഷേ ഇത് അറി അറിയാൻ അറിയാൻ പറ്റും നിങ്ങളിലേക്കെത്തിക്കാനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നു കാരണം രാവിലെ ഒര് അഞ്ച് മണി പോ പോയിട്ടാണ് ഓ പ്പി എടുക്കുന്നത് അതായത് ഓരോ സെക്ഷനിൽ പീഡിയാട്ടിക്ക് സെഷൻ ആൻഡ് ഫിസിഷ്യൻ ഓർത്തോ ഇത് അതുപോലെ മറ്റു ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി നമ്മൾ എട്ട് അഞ്ച് മണിക്ക് തന്നെ പോയി ഓ പ്പീ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ക്യൂ നിന്ന് എട്ട് മണിക്കാണ് അവർ ഓ പ്പി കൊടുക്കാൻ സ്റ്റാട്ട് ചെയ്യുന്നത് അപ്പഴ്ത്തേക്കന്നെ ഒരു നീണ്ട ക്യൂവായിരിക്കും അത് കഴിഞ്ഞ് ഓ പ്പി എട്ട് മാണിക്ക് സ്റ്റാട്ട് ചെയ്ത ഓ പ്പി കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഓ പ്പി വാങ്ങി അവിടെ വെയ്റ്റ് ചെയ്യണം പത്ത് പത്ത് മണി പത്ത് മണി പത്ത് പത്തര ആകുമ്പഴേത്തേക്കാണ് ഡോക്ടേഴ്സ് വരുന്നത് ആ ഡോക്ടേഴ്സ് വന്നതിന് ശേഷം അവർ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും അത്ര വരെ നമ്മൾ വെയ്റ്റ് ചെയ്തിരിക്കണം അത് കഴിഞ്ഞാൽ അവർ ബ്ലെഡ് ടെസ്റ്റോ അങ്ങനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനിണ്ടെങ്കിൽ എക്സറ പോലുള്ള ബെഡ് ടെക്സ്റ്റ് യൂറിൻ ടെസ്റ്റ് കഫട്ടെസ്റ്റ് അങ്ങനെ അങ്ങനെ ഓരോ ടെസ്റ്റും നമുക്കവിടെ അവൈലബിളാണ് പക്ഷേ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കെണ്ടി വരുന്നുണ്ട് നൂ നൂറ് നൂറാൻറ്റെബൗ അതിന് മോളിലാണ് ഈ ഫീസ്സ്കളെക്കെ വരുന്നത് അതുകൊടുക്കുകയും അവർ അവിടന്ന് അത് റിപ്പോട്ട്സ്സ് തന്ന് ഇതേ ഡോക്ടഴ്സിനെ കാണിക്കുകയും അവർ ഫാർമ്മസീലേക്ക് മരുന്ന് കുറിച്ച് തരും പക്ഷേ അവിടെയുള്ള മരുന്ന് സകലതും കഴിഞ്ഞിട്ടുണ്ടാവും പുറമലേത്തേക്കാണ് എഴ്തി തരുന്നത് അപ്പം പുറം പുറം പുറമേൽന്ന് ഒരു ഫാർമസീ പോയിട്ട് വാങ്ങുമ്പളത്തേക്കും ഒരു നല്ലൊരെമൗണ്ട് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈ കൂട്തൽ ഫാ മരുന്നുകൾ ഇവിടെ ഇമ്പോട്ട് ചെയ്യാനും നല്ല നല്ല മരുന്നുകൾ വിലക്കൂടിയ മരുന്നുകൾ നമ്മൾ പുറമ്മേന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇവിടെത്തന്നെ ഇമ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എത്രയോ നന്നായിരുന്നു എന്നും എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് പക്ഷേ എന്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കണ്ട ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി ഡോക്ടറുണ്ടോ ഉച്ചക്ക് ശേഷാണെങ്കിൽ എനിക്ക് ഇത്ര ഈ സമയത്ത് വരാൻ പറ്റുള്ളു അപ്പം ആ വന്നോളൂ ക്യാഷാണ് കൊടുക്കുന്നത് ഇപ്പം ഇവിടെയാണങ്കിൽ ഓ പ്പിക്ക് അഞ്ച് രൂപയും അവിടെയാണങ്കിൽ പ്രൈവറ്റോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ഒരുപ്രാവശ്യം ഒരു പ്രാവശ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഫീ മാത്രം മുന്നൂറ് രൂപെയും കൊടുക്കേണ്ടി വരുന്നു ഫോർ ഫാർമസീല് എക്സ്പ്പെൻസ്സ് വേറെ ഇവിടെയാണെങ്കിൽ ഫാർമസീൽ മരുന്നുണ്ടെങ്കിൽ തരും ഇല്ലങ്കിൽ പുറമേന്ന് എഴ്തിത്തരും ഇങ്ങനേക്കെയാണ് പ്രാ പ്രൈവറ്റോസ്പിറ്റലും ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ തന്നെ ഒരു ഈ ഒരു കൈയ്യൊടിഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവര്ക്ക് എക്സ്സറേ മറ്റ് കാര്യങ്ങൾ അത് ഇത്ന്ന് പറഞ്ഞിട്ട് ജെനറൽ ഹോസ്പിറ്റല് ഭയങ്കരമായ ഒരു എക്സറേക്കൊക്കെ നല്ല പൈസ അവർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്കിത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് സാധാരക്കാരിപ്പോൾ ഇത് സമയത്തെ പേടിച്ചും ഒരു ദിവസം വെറുതേ കളയണല്ലോന്ന് വെച്ചിട്ടും സാധരണക്കാരിപ്പോൾ ജെനറൽ ഹോസ്പിറ്റൽ പോവാറില്ല പ്രൈവറ്റോസ്പിറ്റൽ തന്നെ ആശ്രയിക്കുന്നു പൈസയില്ലെങ്കിൽ പോലും കടം വാങ്ങീട്ടാണ് അവർ പ്രൈവറ്റോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നത്